ഹാ ഞാനേ പനി ആയിരുന്നേ അപ്പൊ അതാ അതിനെപ്പറ്റി പറയാൻ വിളിച്ചതായിരുന്നു ഡോക്ടറിനെ ഇപ്പോൾ ഒരു മൂന്ന് ദിവസായി തുടങ്ങീട്ട് അപ്പോൾ ഫസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറഞ്ഞിട്ടില്ല അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഡോക്ടറിനോട് ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് ഉണ്ട് മേലൊക്കെ വേദന ഉണ്ട് പിന്നെ ജലദോഷവും ഉണ്ട് വീട്ടിലെ വേറെ ആർക്കുല്ല ഫസ്റ്റ് എനിക്കാണ് പനി യെസ് ആവി പിടിച്ചായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഒക്കെ നെഞ്ചിനൊന്നും വേദന ഇല്ല പക്ഷെ ഇങ്ങനെ ജലദോഷത്തിൻറ്റേതായ പ്രശ്നങ്ങളുണ്ട് തലവേദന ചെറുതായിട്ട് ഉണ്ട് ആയിക്കോട്ടേ തൊണ്ടവേദന ഒന്നുമില്ല

ആ ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ വേറെ ഇങ്ങനെ പനികൂർക്കയില ഒക്കെയിട്ട് ആവി പിടിക്കുന്നതിനും കഴിക്കുന്നതിനും കുഴപ്പില്ലല്ലോ ആ ഓക്കേ ഓക്കേ ആ ആ ആ യെസ് ഇപ്പൊ പാരസെറ്റമോൾ മാത്രമാണ് കഴിക്കുന്നേ ഓക്കേ ഓക്കേ ഓക്കേ ശരി ഡോക്ടർ